തീർച്ചയായിട്ടും കായിക വിനോദങ്ങൾ നമ്മുടെ പിരിമുറുക്കം മാറ്റാൻ ഉള്ളതും ആസ്വദിക്കാനുള്ള വഴികളും ആയി മാറുന്നുണ്ട് കാരണമെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു അസ്വസ്ഥമായ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആണെങ്കിലും നമുക്കു പുറത്തുപോയി കൂട്ടുകാരെ കാണുക അവരുടെ ഒപ്പമാണ് നമ്മൾ ഈ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുന്നത് അവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ അവരും ആയിട്ടുള്ള സ്നേഹബന്ധങ്ങൾ അതൊക്കെ നിലനിർത്താനും അതുപോലെ തന്നെ കായിക വിനോദങ്ങൾ നമ്മുടെ ശരീരത്തെയും ആശ്വസിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ പിരിമുറുക്കങ്ങൾ ഒരുവിധം വരെ മാറ്റാനും പറ്റും നമുക്ക് അസ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളോട് ആളുകൾ മിണ്ടുക നമ്മൾ ആൾക്കാരുമായി നല്ല നന്നായിട്ട് ഇടപെടുക ആ ഒരു സാഹചര്യത്തിൽ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ പിരി മുറുക്കങ്ങൾ നമ്മൾ തന്നെ മറന്നു പ്രവർത്തിച്ചു പോകും നമ്മുടെ ശരീരം ഓക്കെയാകുന്ന സമയത്ത് നമ്മുടെ മനസ്സും ഓക്കെയാകും അതുകൊണ്ട് കായിക വിനോദങ്ങൾ നമുക്ക് പിരി പിരിമുറുക്കം മാറ്റാനായിട്ടുള്ള വഴികളായി മാറുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ കൂടുതലായിട്ടും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കായിക വിനോദങ്ങൾ സഹായിക്കുന്നുണ്ട് കാരണം എന്തെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പല സാഹചര്യങ്ങളിലും കളിക്കുന്ന സമയത്ത് നമ്മളുടെ നമ്മുടെ ജയം അല്ലെങ്കിൽ പക്ഷേ പരാജയം കൂട്ടുകാരുടെ കൂടെയുള്ള പരാജയം ആണെങ്കിലും ജയം ആണെങ്കിലും ആസ്വദിക്കാൻ ആയിട്ടുള്ള സാഹചര്യം നമുക്ക് കിട്ടും കൂട്ടുകാരുടെ കൂടെയാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കൂടെ ആകുമ്പോൾ നമ്മുടെ ചേച്ചിയുടെ കൂടെ ചേട്ടൻ്റെ കൂടെ അനിയത്തിയുടെ കൂടെ അനിയൻ്റെ കൂടെ ആരുടെ കൂടെയായിരുന്നാലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു റിഫ്രഷ്നസ്സ് ഉണ്ടാകും അതുപോലെ തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും നമുക്ക് കൂടുതലായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ആശ്വാസം തരുന്നതും ഒരുപോലെ നന്നാക്കുന്നതുമായ കാര്യങ്ങളാണ് അതുകൊണ്ട് കായിക വിനോദങ്ങൾ നമുക്ക് എപ്പോഴും പിരിമുറുക്കം മാറ്റാനും നമുക്ക് ആസ്വദിക്കാനുള്ള മഴിയാ വഴിയായി തന്നെ മാറുന്നുണ്ട്